ഇന്ത്യയിൽ എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഊട്ടിയാണ് ഊട്ടിയെന്ന് വച്ചാൽ നമ്മൾ രാവിലെ ഒരു വെളുപ്പിനൊക്കെ എണീക്കുമ്പോൾ എപ്പോൾ എപ്പോൾ എണീച്ചാലും നമ്മൾ ഈ മറ്റേ നല്ല തണുപ്പും മഞ്ഞും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പിന്നെ കാണാനൊക്കെ നല്ല കാഴ്ച്ചകളും അങ്ങനത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് നമ്മുടെ ഊട്ടിയിലുള്ളത് പിന്നെ നമ്മുടെ ഊട്ടിയിലൊക്കെ കൂടെയിങ്ങനെ സഞ്ചരിച്ച് കൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് കാടും പിന്നെ മലയും കുന്നും അങ്ങനത്തെ കുറച്ച് സ്ഥലത്തൊക്കെ കയറുന്ന ആ ഒരു ഒരു കിടിലൻ സ്ഥലമാണ് നമ്മുടെ ഗുണ കേവ് സിനിമയിലെ പോലെയാണകത്തെ അങ്ങനൊക്കെ ഉള്ളൊരു ഫീലൊക്കെയാണ് അങ്ങനത്തെ ഗുണ കേവ് സ്ഥലമില്ലേ അതുപോലെ തന്നെയാണ് നമ്മളൊരു ഫീലിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണെനിക്ക് ആ ഇപ്പോഴും പോകാൻ ഒരു അഗ്രഹമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഊട്ടിയെന്ന് പറഞ്ഞാൽ ഊട്ടിയെന്ന് പറഞ്ഞാൽ നല്ലെ നല്ലെ കിണ്ണം കാച്ചിയ ഒരു സ്ഥലമാണ് ഉച്ച കഴിഞ്ഞാൽ പോവാം രാവിലെ മുതൽ നല്ല മഞ്ഞും ശ് നല്ല തണുപ്പും അങ്ങനെയൊക്കെ എണീക്കുമ്പം കിടുക്കൊരിതാണ് നമ്മുടെ ഒരു കിടിലം ഒരു ഒരു മനഃസുഖം കിട്ടും